ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ കൃഷികൾ ചെയ്യുന്നവരെ കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം എന്നു വച്ചാൽ ഇപ്പോൾ കൂടുതലും പണ്ടത്തെ കാലത്തെപ്പോലെ എല്ലു മുറിയെ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് ഇന്ന് ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികളായാലും അല്ലെങ്കിൽ വലിയ ആളുകളാണെങ്കിലും എങ്ങനെയെങ്കിലും ഒന്നു ബിസിനസ്സ് ചെയ്യണം എന്നു ചിന്തിക്കുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ ഈ കൃഷികൾ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനും ആളുകളെ കണ്ടെത്താനും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് വച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് ഇപ്പോൾ ഈ കേരളം ആയിക്കോട്ടെ കേരളത്തിൽ നിന്നും കൃഷികൾ ചെയ്യുന്ന അല്ലെങ്കിൽ പച്ചക്കറി കൃഷികളായിക്കോട്ടെ എന്ത് വാഴക്കൃഷി എന്ത് കാര്യങ്ങളായാലും ഇത് കൃഷികൾ ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽപ്പോലും നമുക്ക് പുറം ഒരു സംസ്ഥാനത്തുനിന്ന് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒരു പച്ചക്കറികളായാലും കാര്യങ്ങളായാലും ലോഡ് കണക്കിന് ടൺ കണക്കിന് സാധനങ്ങളൊന്നും കയറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്ന് ഇതെല്ലാം ചെയ്യേണ്ടിവരുന്നത് ഇന്നിവിടെ കൃഷി ചെയ്യാൻ ആരുമില്ല ഇപ്പം നെല്ലുപോലും നെല്ല് കൃഷിചെയ്യുന്നുണ്ടെങ്കിൽപ്പോലും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ പുറത്ത് പുറം രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്ന ഇപ്പോൾ കൂണായിക്കോട്ടെ ഒരു ഉദാഹരണത്തിന് ഒരു കൂൺ കൃഷി ചെയ്യുന്ന ആളുകൾ ആ കൂൺ പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് പുറം രാജ്യത്തേക്കാണ് പോവുന്നത് അല്ലാതെ നമ്മുടെ സംസ്ഥാനത്തേക്കും നമ്മുടെ കേരളത്തിൽ ഉപയോഗിക്കാനല്ലാതെ ചെയ്യുന്നത് പക്ഷെ മണ്ണിൽ പണിയെടുത്ത കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നിപ്പോൾ അതുപോലെത്തന്നെ പണ്ട് തൊഴിലാളികൾക്ക് കൊടുത്തിരുന്ന കൂലി ഇന്ന് കൊടുക്കാൻ പറ്റില്ല ഇന്ന് അതിൽക്കൂടുതൽ കൊടുക്കാൻ കൂടുതൽ കൊടുക്കണം അതുപോലെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവർക്ക് ഒരു എണ്ണൂറ് രൂപ എങ്കിലും തിരച്ചും കുറഞ്ഞത് എണ്ണൂറ് രൂപയെങ്കിലും കൊടുത്താലേ ഇന്ന് ആരും ഒരു പണിക്ക് ജോലിക്ക് വരുള്ളൂ പണ്ടത്തെക്കാലത്ത് പണിയെടുത്തിരുന്നത് പാട്ടത്തിനായാലും സ്ഥലം പാട്ടത്തിനെടുത്ത് പണിയെടുക്കുന്നവരാണെങ്കിലും അവർ കുറച്ച് പൈസയ്ക്കുവേണ്ടി അല്ലെങ്കിൽ ഒരു മുന്നൂറുരൂപ ഇരുന്നൂറുരൂപ ദിവസക്കൂലിക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെക്കാലത്ത് അതൊന്നും നടപ്പിലാകുന്ന കാര്യമല്ല കാരണം ഇന്ന് ഒരാളെ പണിക്ക് നിർത്തണമെങ്കിൽതന്നെ കുറഞ്ഞത് എണ്ണൂറുരൂപ ആയിരം രൂപ കൊടുക്കണം ഈ ഒരാൾക്ക് കൊടുക്കുന്ന ഈ പൈസയുണ്ടെങ്കിൽ പണ്ടത്തെക്കാലത്ത് രണ്ടുപേരേയും മൂന്നുപേരേയും ജോലിക്ക് നിർത്താമായിരുന്നു ഒരു തൊഴിലിന് നിർത്താമായിരുന്നു പക്ഷേ ഇന്നത്തെക്കാലത്തത് പറ്റാത്തതുകൊണ്ട് അതും ഒരു വെല്ലുവിളിയായി തീരുന്നുണ്ട് ഇപ്പം തൊഴിലാളികളെ കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽപ്പോലും അത് ഒരുപാട് തൊഴിലാളികളില്ല കൂടുതൽ തൊഴിൽ ചെയ്യുന്നവരും ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നില്ല കാരണം ചില വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ മിതമായ വെള്ളമില്ല അല്ലെങ്കിൽ മഴ ആയിക്കഴിഞ്ഞാൽ വെള്ളം വെള്ളം കെട്ടി നിൽക്കുന്നു അവരെ കൃഷി നാശമാവുന്നു ഇപ്പോൾ ഒരു കാറ്റ് വന്നാൽ വാഴക്കൃഷിയാണെങ്കിൽ ഇപ്പോൾ ഒരു കാറ്റു വന്നാൽ അതും ചരിഞ്ഞു വീഴുന്നു അവരെ കൃഷി നാശത്തിലേക്ക് വന്നതോടെ കൂടുതൽ ആളുകളും ഇപ്പോൾ കൃഷി ചെയ്യാൻ മടിക്കുന്നുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും അവർ ആ കൃഷി എന്നൊരു ഓപ്ഷൻ മാറ്റി അവർ പണിയെടുത്ത് അവർ മറ്റു പണികൾ എടുത്ത് ജീവിക്കുന്നവരുണ്ട്